ഒന്ന് നാല് രണ്ടായിരതി ഇരുപത്തഞ്ച് ഇരുപത് അഞ്ച് രണ്ടായിരത്തി അഞ്ച് നാല് മൂന്ന് രണ്ടായിരത്തി ഒമ്പത് അഞ്ച് ഏഴ് രണ്ടായിരത്തി എട്ട് പത്തൊമ്പത് നാല് രണ്ടായിരത്തി എട്ട്